ഓ ശബ്ദത്തിന് വളരെ അധികം പ്രാധാന്യമുള്ളത് ഇപ്പോൾ ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ശബ്ദമാണ് അപ്പം ആ ശബ്ദം നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ ഇപ്പോൾ ഒരു ക്ലാസിൽ തന്നെ നാല്പത് അമ്പത് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ആ അമ്പത് കുട്ടികളേയും നമ്മൾക്ക് ഒരു പോലെ അടക്കി ഇരുത്തണമെങ്കിൽ നല്ല ശബ്ദം ആവശ്യമാണ് അപ്പോൾ ശബ്ദത്തിന് ഇടർച്ചയും അതു പോലെ തന്നെ ശബ്ദം പോവുകയും ചെയ്യാം അപ്പോൾ പാടുന്ന സമയത്ത് നമുക്ക് അതെല്ലാം പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ് പാട്ടു പാടുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലിയറായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനോഹരായിട്ടുള്ള ശബ്ദം വേണം പിച് കൂടാം അല്ലെങ്കിൽ വെള്ളി വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അപ്പം ശബ്ദത്തിന് വളരെ അധികം പ്രാധാന്യമാണ് പാട്ടിലിള്ളത് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആണുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ വോയിസ് എടുത്തേ മതിയാവു ശബ്ദം എടുത്തേ മതിയാവു അപ്പോൾ ആ ശബ്ദം എങ്ങനെയെക്കെയാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തണുത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും കുടിക്കാണ്ടിരിക്കാം പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന സം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തണുപ്പ് ഉള്ളതും പരമാവധി ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഐസ്ക്രീം അതു പോലുള്ള കാര്യങ്ങൾ ഒന്നും കുടിക്കാറില്ല രാവിലെ എണീറ്റ് ചെറു ചൂടുവെള്ളം കുടിക്കും അതുവഴി നമുക്ക് ശബ്ദത്തിന് എന്തെങ്കിലും തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മാറും പിന്നെ അതുപോലെ തന്നെ കൽക്കണ്ടം ശബ്ദമൊക്കെ നഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ കൽക്കണ്ടം നന്നായിട്ട് കഴിക്കും അതുപോലെ തന്നെ നമ്മൾ ഇരട്ടി മധുരം വലിയ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ശബ്ദമൊക്കെ പോയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ ആവുന്ന സമയത്ത് ഇരട്ടി മധുരം കഴിക്കുകയാണെങ്കിൽ ആ ശബ്ദം തിരിച്ചു വരികയും നമുക്ക് മനോഹരമായിട്ട് പാടാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കെയാണ് ശബ്ദ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് ശബ്ദം എന്ന് ഉള്ളത് ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് നമുക്ക് ശബ്ദത്തിന് വളരെ അധികം പ്രാധാന്യം ആണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്കും പാട്ടു പാടുന്നതിന് നമുക്ക് നല്ല വോയിസ് വേണം ടീച്ചറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വോയിസ് തന്നേയാണ് വേണ്ടത് അപ്പോൽ ഇതിനെ രണ്ടിൻ്റേയും ഇടയിൽ നല്ല ബുദ്ധിമുട്ടാണ് ശബ്ദത്തിന് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ